ആ പറഞ്ഞോളു വീട്ടിലൊരു പ്രശ്നവും ഇല്ല നല്ലവണ്ണം പഠിക്കുന്നൊരു കുട്ടിയായിരുന്നു എന്താണ് പറ്റിയത് ടീച്ചറിങ്ങനെ പറയുന്നത് കേട്ടപ്പൊത്തന്നെ എനിക്ക് പേടിയാവുന്നു ആ നല്ല എല്ലാം ആ കറക്റ്റായിറ്റ് ചെയ്യുന്നൊരു കുട്ടിയാണ് പഠിക്കാനും മിടുക്കനായിരുന്നു ഇപ്പം വീട്ടിൽ പറയത്തക്ക ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല പിന്നെ സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നം ഉള്ളതായിട്ട് ടീച്ചറിന് തോന്നുന്നുണ്ടോ ഏയ് ഇല്ല മേഡം ടീച്ചർ അത് കറക്റ്റായിറ്റ് അവൻ കൊണ്ട് വരുന്ന ഹോ വർക്കെല്ലാം കൃത്യമായിട്ട് ചെയ്ത് വെയ്ക്കാറുള്ളതാണ് പതിവ് പിന്നെ പഠിക്കുന്നു ഞങ്ങൾ പഠിക്കാൻ പറയുമ്പോൾ ഓടി ചെന്നിരുന്ന് ഓ പഠിക്കുന്നതാണ് കാണുന്നത് ആ പിന്നെ എന്താണ് പറ്റിയതെന്ന് എനിക്ക് അറിഞ്ഞൂടാ ടീച്ചറ് പറഞ്ഞത് പോലെ ഇപ്പോൾ കളിയിലേക്ക് ശ്രദ്ധ തിരിഞ്ഞത് കൊണ്ടാവാം എന്തായാലും അവനെ ഒന്ന് ടീച്ചറ് ഇമ്പ്രൂവ് ചെയ്ത് പഠിപ്പിച്ചെടുക്കണം നല്ല പഠിക്കുന്ന കുട്ടിയായിരുന്നു എന്താണ് ഇത് പറ്റി ഞാൻ നല്ല നല്ല ട്യൂഷൻ കൊടുത്താണ് വിട്ടിരിക്കുന്നത് ആ ട്യൂ ട്യൂഷൻ ടീച്ചറ് ഒന്നും പറഞ്ഞിട്ടില്ല നല്ലവണ്ണം പഠിക്കും എന്നാണ് പറയുന്നത് പിന്നെ ടീച്ചറ് ഇങ്ങനെ പറയുമ്പോൾ എന്താണെന്ന് ഞാൻ ആ ട്യൂഷൻ ടീച്ചർനെ വിളിച്ചിട്ട് ചോദിക്കാം എന്താണ് കാരണമെന്ന് എ എനിക്കും അറിയണോല്ലൊ നല്ലവണ്ണം പഠിച്ചോണ്ടിരുന്ന കുട്ടി എന്താണ് ഇങ്ങനെ പറ്റിയതെന്ന് എനിക്ക് അറിയില്ല ആ ഞാൻ അതിന് ശ്രദ്ധ വെച്ചോളാം പക്ഷേ ടീച്ചറും അതിനോട് നല്ല ഒരു ശ്രദ്ധ പുലർത്തി എൻ്റെ മോനെ ആ നല്ല രീതീൽ കൊണ്ട് വരാൻ നോക്കണം ടീച്ചർനോട് ഞാൻ അഭ്യർത്ഥിക്കയാണ് ടീച്ചറൊന്ന് നല്ലതായിട്ട് അവനെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ട് വരണം

തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വരും സർ ടീച്ചർ തന്നെ എന്തായാലും ആ അവൻ്റെ അച്ഛൻ പറഞ്ഞാൽ എല്ലാം അനുസരിക്കുന്നൊരു മോനാണ് പിന്നെ ഞാൻ സ്കൂളിൽ വന്നിട്ട് എന്താണെന്ന് ടീച്ചറ് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവും അവനെയും കൂടെ നിർത്തി പറയുമ്പോൾ അവനും കൂടുതൽ ക്യാച്ച് ചെയ്യും പറ്റും ആ എന്തായാലും ഞാൻ നാളത്തന്നെ ടീച്ചർ ഞാൻ ക്ലാസ്സി വരുന്നതാണ് ഓക്കെ ടീച്ചർ